കരുതുന്നുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാ നമ്മള് മാതൃഭാഷ എന്ന് പറയണത് മലയാളം തന്നെയാണ് അപ്പോൾ അത് കൂടുതൽ അറിഞ്ഞിരിക്കണം ഇപ്പോ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് എല്ലാ ജില്ലയിൽ പോയാലും നമ്മള് സംസാരിക്കുന്നത് മലയാളം തന്നെയാണ് പുറത്ത് പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളുള്ളൂ പുറത്ത് പോകുമ്പോൾ ചിലവർക്ക് മലയാളം അറിയാത്തത് അങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയുന്നവരും മാത്രം അല്ലെങ്കിൽ ഹിന്ദി അറിയുന്നവര് മാത്രം അങ്ങനെയക്കെയാണ് മറ്റുള്ളവടെ പോയാ പക്ഷേ ഇവിടെ അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇംപോർട്ടൻസ് കൊടുക്കുന്ന മലയാളത്തിന് തന്നെയാണ് മാധ്യമങ്ങള് എങ്ങനെയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് ചോദിച്ച് പറഞ്ഞാൽ മലയാള ഭാഷയ്ക്ക് കൂടുതൽ ഇംപോർട്ടൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് പറയാൻ ഇപ്പോൾ ചെറുപ്പം മുതലേ ഞങ്ങളൊരു കുട്ടീനേ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ചു പഠിപ്പിച്ച് ഞമ്മളൊരു പത്ത് അല്ലേ പത്ത് അല്ലെങ്കിൽ പ്ലസ് ടുവൊക്കെ എത്തീന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് മലയാളം വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ കേട്ട് അങ്ങനെ മന് അറിയില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആ നമ്മള് എത്രത്തോളം പഠിപ്പിച്ചതിന് ഒരു വാല്യൂ ഉണ്ടാവില്ലല്ലോ ഇംഗ്ലീഷ് അറിയണം മോസ്റ്റ് ഇംപോർട്ടന്റും നമ്മൾക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ പോയിട്ട് ഞമ്മളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്ക് എന്ന് പറയാൻ ആണെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷിൽ മലയാളത്തിനേയും കാട്ടി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു പടി സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ ഇത്തിരി ഇംപോർട്ടൻസ് നമ്മള് ഇംഗ്ലീഷിന് കൊടുക്കണം കാരണം എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനും ഇപ്പോൾ നല്ല പോലെ വായിക്കാനും എഴുതാനും ഫ്ലൂവന്റായിട്ട് സംസാരിക്കാനും പറ്റാവുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യം കൂടി എന്താണെന്ന് വച്ച് പറഞ്ഞാൽ മലയാളം തന്നെയാണ് കൂടുതൽ ഇംപോർട്ടൻസ് കൊടുക്കേണ്ടതും മലയാളത്തിന് തന്നെയാണ് മലയാളത്തിന് തന്നെയാണ്